മുടിയുടെ ആരോഗ്യത്തിന് നമുക്കെപ്പോഴും കാച്ചിയ എണ്ണയായിരുന്നു എണ്ണയാണ് തേക്കേണ്ടത് കാച്ചിയ എണ്ണയിൽ ഇപ്പോൾ എന്തോരം ഔഷധങ്ങൾ വരുന്നുണ്ടെന്ന് വച്ചാൽ കറ്റാർവാഴ കയ്യോന്നി മൈലാഞ്ചി ബീറ്റ്റൂട്ട് കറിവേപ്പില ഇതൊക്കെ നമ്മുടെ അങ്ങന ഒത്തിരിയേറെ ഔഷധങ്ങളുണ്ട് നമ്മുടെ മുടിക്ക് ആരോഗ്യത്തിനുള്ള ഈ സാധനങ്ങളെല്ലാം ഇട്ട് പിന്നേ നല്ല കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാവും നാട്ട് നാട്ടു വെളിച്ചെണ്ണ ഉണ്ടാവും അതിനകത്തൊക്കെ ഇട്ടു കാച്ചിക്കഴിഞ്ഞാൽ നല്ല നല്ല മുടി വളരാനും ചർമ്മത്തിനുമൊക്കെ നല്ലതാണ് പിന്നെ മുഖത്താണെങ്കിൽ നമുക്ക് മുഖത്താണെങ്കിൽ നമുക്ക് തക്കാളി അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഉണ്ടാവുമല്ലോ വെജിറ്റബിൾസൊക്കെ തേക്കാം നമുക്ക് ഇതൊക്കെ മുഖത്തിൻ്റെ ഭംഗി ഭംഗി കൂട്ടാനും ഗ്ലോ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് മുടിയുടേയും ചർമ്മത്തിൻ്റെയും കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആയുർവേദം തിരഞ്ഞെടുക്കുന്നതു തന്നെയാണ് പണ്ടുകാലം മുതലേ നാട്ടുവൈദ്യങ്ങളായിരുന്നു എല്ലാവരും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഈ ഇപ്പോഴും അങ്ങനെത്തന്നെയുണ്ട് ഇപ്പം മുഖത്തിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തക്കാളി അരച്ച് അതിൻ്റെ ജ്യൂസ് തേക്കാം ബീറ്റ്റൂട്ട് തേക്കാം ക്യാരറ്റ് തേക്കാം അങ്ങനെ ഉള്ള വെജിറ്റബിൾസിലെല്ലാം പഴം പിന്നെ മുടിയിലാണെങ്കിൽ നമുക്ക് താരൻ പോവാനാണെങ്കിൽ മുട്ട തേക്കാം ഇതൊക്കെ ആയുർവേദത്തിൽപ്പെടുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പണ്ടുകാലം മുതലേ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളാണ്